എനിക്ക് വളർത്താനിഷ്ടമുള്ളത് പൂക്കളാണ് കാരണം എൻ്റെ വീട് വീട് കുറച്ച് ഹൈറ്റിൽ പണിതിട്ടാണ് അപ്പം അതിൻ്റെ മുന്നിലെന്താന്നുണ്ടെങ്കില് ചെടികളൊന്നുമില്ലാണ്ടൊരു ആകെക്കലമ്പായിരുന്നു പിന്നെയാണ് ഞാനെവിടെപ്പോയാലും ചെടിയൊക്കെ കാണുമ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്നെ അതുകൊണ്ട് എനിക്കന്നെ എൻ്റെ വീട്ടിൻ്റെ മുന്നില് കുറെ പൂന്തോട്ടം ഉണ്ടാക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമൊണ്ടായിരുന്നു പണ്ടുതൊട്ടേ അപ്പം പണ്ടതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇപ്പഴാണെങ്കിൽ ഞാൻ കാണുന്നേടത്തുന്നൊക്കെ ഏത് ചെടി കണ്ടാലും ഞാനതിൻ്റെ കൊമ്പോ വിത്തോ എന്താണെങ്കിലും അതൊക്കെ ഞാൻ മേടിക്കും ഞാനെൻ്റെ വീടിൻ്റെ മുന്നില് ഫുള്ള് നട്ട് ഫുള്ളൊരു പൂന്തോട്ടം പോലെയാക്കിയിപ്പോൾ കാണാൻ തന്നെ ഭയങ്കര മൻ മനോഹരാണ് എൻ്റെ വീട്ടിലാര് വന്നാലും ഇപ്പം അവർക്ക് വിത്തോ കൊമ്പൊക്കെ വേണേൽ അവരൊടിച്ചോണ്ടു പോവും അതായത് എല്ലാവർക്കും ഒരുതരം ഇൻസ്പിറേഷനാണ് എനിക്ക് എൻ്റെ വീട്ടീന്ന് പറഞ്ഞിപ്പം ഇപ്പം ഒരു പൂന്തോട്ടം പോലെയാണ് എനിക്കെൻ്റെ വീട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് പൂ നടുന്നത് എൻ്റെ അമ്മയ്ക്കും ഒരു പ്രാന്തുണ്ടങ്ങിനെ ഇങ്ങനെ പൂ ഒക്കെ നട്ടുപിടിപ്പിക്കാന്നുള്ളത് അപ്പം ഞങ്ങള് ഞാനും എൻ്റെ അമ്മയും കൂടെക്കൂടി ഒരുപാട് പൂക്കള് ഞങ്ങളെ വീട്ടിലിപ്പം നട്ടിട്ടുണ്ട് ഒരുപാട് പൂക്കളുണ്ട് പൂന്തോട്ടം പോലെയായിട്ടുണ്ട് ഞങ്ങടെ വീടൊക്കെ